പശുവളർത്തലിനെ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും കർഷക മാസികയ്ക്ക് അകത്തുനിന്ന് ഞങ്ങള് വായിച്ച് മനസ്സിലാക്കി ഞങ്ങള് അത് വരുത്തുന്നുണ്ട് ഓരോ മാസവും വരുന്ന മാസികയ്ക്ക് അകത്ത് ദോഷവശങ്ങളും നല്ല വശങ്ങളും അവര് വിവരിക്കുന്നതുകൊണ്ട് ഞങ്ങള്ക്ക് അത് നോക്കി മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് അപ്പോള് ആ മാസികയ്ക്ക് അകത്ത് ഇതിൻ്റെ പ്രതിരോധങ്ങളും ആ വളർത്തുന്ന വിധങ്ങളും എല്ലാം വിവരിക്കുന്നുണ്ട് അപ്പോള് ആ വിവരിക്കുന്നതനുസരിച്ച് പറയാണെങ്കില് ഒരു പശുവിനെ സംബന്ധിച്ചും പറഞ്ഞാൽ എനിക്ക് ഞാൻ അഞ്ച് പശുക്കളെ വ വളർത്തിയുള്ള അഞ്ച് പശുക്കളെ വളർത്തിയിട്ടുണ്ട് ഈ അഞ്ച് പശുക്കളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞുകഴിഞ്ഞാൽ അഞ്ച് പശുക്കളെ രാവിലെ നമ്മള് അതിരാവിലെ എണീറ്റ് ഞങ്ങള് ക കറക്കും കറന്ന് കഴിഞ്ഞാല് ഉടനെ തീറ്റ കൊടുക്കും കാലിത്തീറ്റ കൊടുക്കും ആ കാലിത്തീറ്റ കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു സാധാരണ നമ്മുടെ പറമ്പുകളിലെ പുല്ല് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പുല്ല് ഒരു വാര് ഒരു വാര് കൊടുക്കും ആ ഒരു വാര് പുല്ല് കൊടുത്തുകഴിഞ്ഞുകഴിഞ്ഞാല് പിന്നെ അതിനെ അഴിച്ചുമാറ്റി കെട്ടും ഒരു പച്ചവെള്ളവും കൊടുക്കും കാലിത്തീറ്റ കൊടുക്കും കാലിത്തീറ്റ നമ്മള് കൊടുത്തുകഴിയുമ്പോഴത്തേക്ക് ആ കാലിത്തീറ്റ വെള്ളം ശകലം ഒന്ന് കുഴച്ച് വച്ചുകൊടുക്കും അതൊക്കെ തിന്നോളും പശു ആ പിന്നെ പശുവിനെ നമ്മള് അസുഖം വരാതെ ശ്രദ്ധിക്കേണ്ടത് കറന്ന് കഴിഞ്ഞുകഴിഞ്ഞാലുടനെ നമ്മൾ ഡെറ്റോളൊഴിച്ച് ഈ ഒന്നും രണ്ടും ദിവസം കൂടുമ്പോള് ഡെറ്റോളൊഴിച്ച് അതിൻ്റെ അകിടൊക്കെ നമ്മള് വൃത്തിയായിട്ട് കഴുകും അത് അല്ലെങ്കില് വരുന്ന കുഴപ്പം എന്നാന്ന് വച്ചാലതിൻ്റെ ആ ദ്വാരത്തില് കൂടെ അതായത് പാല് വരുന്ന ആ ദ്വാ ദ്വാ ദ്വാരത്തീക്കൂടെ വ വ വൈറസ് കയറി ഈ അകിട് നീരൊക്കെ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നിട്ടുള്ളതുകൊണ്ട് അനുഭവങ്ങൾ വന്നത് കൊണ്ട് നമ്മളെ പഠിപ്പിച്ച് ഞങ്ങളത് ചെയ്തുകൊണ്ടാണ് ഇരുന്നേ അതുപോലെ തന്നെ തീറ്റി കൊടുക്കുമ്പോഴത്തേക്ക് തീറ്റി കാര്യത്തിൽ വളരെ ശ്രദ്ധമായിട്ട് ശ്രദ്ധിച്ച് ഞങ്ങള് പാത്രങ്ങള് നല്ല വൃത്തിയായിട്ട് കഴുകി ഉണങ്ങും വെയിലത്ത് വച്ചുണങ്ങും കഴിവതും രാവിലെ തീറ്റി കൊടുത്തുകഴിഞ്ഞാലത് വെയിലുള്ള സമയത്താണെങ്കിൽ വെയിലത്തുവച്ച് പാത്രങ്ങളെല്ലാം ഉണങ്ങും

ഞങ്ങള് മായി വാങ്ങിവയ്ക്കുമ്പോള് കാലിത്തീറ്റ ചാക്കിനകത്താണ് വാങ്ങുന്നത് ഒരു ചാക്ക് വാങ്ങുന്നത് ഒരു ചാക്ക് വാങ്ങി കഴിഞ്ഞാൽ ആ ഒരു ചാക്കൊരു മൂന്ന് പ്രാവശ്യം ഞങ്ങള് ഇട്ട് കഴിഞ്ഞിട്ടത് കൊടുത്ത് ഒരു പാ കുറച്ച് കൊടുത്തുകഴിഞ്ഞ് കുറച്ച് ആയി കഴിയുമ്പഴ്ത്തേക്കത് വെയിലത്തിട്ടൊന്ന് വെയില് കൊള്ളാൻ വെയില് കൊള്ളിക്കും വെയില് കൊള്ളിക്കുന്നത് അതിനുള്ള ഫങ്കസ് പോകാനായിട്ടാണ് എന്നിട്ട് വാരിക്കെട്ടി ആ ചാക്കിനകത്ത് തന്നെ വയ്ക്കും അത് തന്നെ വീണ്ടും കൊടുക്കും അതുപോലെ തന്നെ നമുക്ക് പ പശുവിനെ ഒക്കെ ഈ അസുഖങ്ങളുണ്ടായി കഴിയുമ്പോഴത്തേക്ക് ദഹനക്കേട് ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങള് പുൽത്തൈലം മേടിച്ചുവച്ചിട്ടുണ്ട് പുൽത്തൈലം അതൊരു ശകലം വെള്ളത്തിൽ ചേർത്ത് ഒഴിച്ച് കൊടുക്കും അത് ചെ ചിലപ്പോള് മാറും ഗ്യാസുമൊക്കെ ഉണ്ടാകുമ്പോള് മാറും ചിലത് മാറത്തില്ല അതുപോലെ തന്നെ കെടക്കാനുള്ള നല്ല സംവിധാനം കൊടുക്കണം എന്താണ് ഈ റബ്ബർ ഷീറ്റിൻ്റെ ഇതിട്ടാ പശുക്കളെ കിടത്തുന്നത് അതുപോലെ തന്നെ കുളിപ്പിക്കുമ്പോഴത്തേക്ക് നല്ല വൃത്തിയായിട്ട് മോട്ടറോടിച്ച് പിന്നെ പമ്പ് ചെയ്ത് അതിനെ കഴുകി ആ കൂടുമൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി കൂട് ഉണങ്ങി കഴുകിക്കഴിഞ്ഞും പശുക്കളെ അഴിച്ച് മാറ്റി കെട്ടിയാല് കൂട് ഉണങ്ങും മഴക്കാലം വരുമ്പോഴത്തേക്ക് മാത്രമേ ഇച്ചിരാ വ്യത്യാസം ഇതിനൊക്കെ ഉണ്ടാകത്തുള്ളു അത് ഞങ്ങള് വളരെ ശ്രദ്ധിച്ച് മഴക്കാലത്ത് ചെയ്യും അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത് എന്നാന്ന് വച്ചാലിതിൻ്റെ ചാണകം ഞങ്ങള് സൂക്ഷിക്കുന്നത് ഈ പുറത്ത് ഇച്ചിര അകലത്തിലുള്ളൊരു സ്ഥലത്താണ് അകലത്തിലുള്ള സ്ഥലത്താണ് ചാണകം സൂക്ഷിക്കുമ്പോഴത്തേക്ക് ആ ചാണകത്തിൽ നിന്നുള്ള കൃമികളിങ്ങോട്ട് വരാതിരിക്കും പിന്നെ ഈ പിന്നുള്ളത് എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാല് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നതും ഈ ആഹാരം കൊടുക്കുന്നതിനകത്ത് ചേർക്കുന്ന വെള്ളവും അതെല്ലാം നല്ല ശുദ്ധമായ വെള്ളമേ കൊടുക്കത്തുള്ളു അതിന് കാരണം ഞങ്ങള്ക്ക് എന്താ അങ്ങനെ ചെയ്യുന്നേന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അനുഭവങ്ങള് നമ്മളെ പഠിപ്പിച്ചതുകൊണ്ട് നമ്മള് ഈ പിന്നെ ഓരോ അസുഖങ്ങളൊക്കെ വരുമ്പഴ്ത്തേക്ക് മൃഗഡോക്ട്ടർമാര് വെറ്റനറി ഡോക്റ്റർമാരെല്ലാവരും പറയും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോള് ഞമ്മളതനുസരിച്ച് പാലിച്ചാണ് ഇത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാ നമ്മള്ക്ക് ഈ പശുവിന് ദഹനക്കേടോ അല്ലങ്കിൽ അകിട് വീ വീക്കമോ അങ്ങനെ എങ്കിലും ഉണ്ടാകുമ്പോഴ്ത്തേക്ക് ഞങ്ങള് ചെയ്യുന്ന എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാല് ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാല് ഞങ്ങള് വൃത്തിയായിട്ടകിടൊക്കെ കഴുകി വൃത്തിയായിട്ട് മൃഗഡോക്ടറെ കണ്ട് നമുക്കൊരു പിന്നെ ഇതുണ്ട് പാല് കെട്ടിക്കിടക്കാതിരിക്കാനായിട്ടൊരു പിന്നെ മൃഗാശുപത്രിയിന്നൊരു കമ്പ് തരും കമ്പ് തള്ളിക്കയറ്റി അതിൻ്റെ സുഷിരം വലുതാക്കി വിടും അങ്ങനെ വലുതാക്കി വിട്ട് കഴിഞ്ഞിട്ട് ആ പാല് കറന്നുകളയും അവിടെ വെച്ചേക്കത്തില്ല അങ്ങനെ കറന്നുകളയുന്ന പാല് ഞങ്ങള് ഉപയോഗിക്കത്തൊന്നുമില്ല അത് വല്ല മരത്തിൻ്റെ മൂട്ടിലോ അല്ലേ അങ്ങനെ വല്ലടത്തും കൊണ്ടുപോയി ഒഴിക്കത്തേ ഉള്ളു അതുപോലെ തന്നെ ഈ തീറ്റ കൊടുക്കുമ്പോഴും ഒക്കെ കൂട് കഴുകുമ്പോഴുമെല്ലാം ഞങ്ങള് തന്നെ നമ്മുടെ കയ്യൊക്കെ നല്ല വൃത്തിയാക്കി സൂക്ഷിച്ചുകൊണ്ടാണ് മറ്റു മനുഷ്യരിൽ നിന്നും നമ്മുടെ പെരുമാറ്റുന്ന ആളുകളിൽ നിന്നും ഇത് വരുമല്ലോ എനിക്ക് പിന്നെ ഒരു ഒരു ഹിന്ദിക്കാരനുണ്ട് ആ ഹിന്ദിക്കാരനെ സംബന്ധിച്ച് പറഞ്ഞുകഴിഞ്ഞാലവനെ ഈ തീറ്റി കൊടുക്കുന്നതൊക്കെ കയ്യൊറയൊക്കെ ഇട്ടാണ് ഇട്ടാണവന് കൊടുക്കുന്നത് അതൊക്കെ ആദ്യകാലങ്ങളിലൊന്നും ഞങ്ങളങ്ങനെ ചെയ്യാറില്ലായിരുന്നു ഞങ്ങള് ഈ സാംക്രമികരോഗങ്ങൾ കൂടി പശുക്കൾക്കൊക്കെ ഇങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഈ നിർദ്ദേശങ്ങൾ കൂടുതല് വരുമല്ലോ ഈ കർഷക മാസികയിലും അത്പോലെ തന്നെ വെറ്റിനറി ഡോക്ടര്മാരും പറയും ഒരു പ്രാവശ്യം ഒരു ഡോക്ടർ വന്ന് കഴിഞ്ഞാല് പറയും നിങ്ങള് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പഴ്ത്തേക്ക് അതനുസരിച്ച് നമ്മള് പാലിച്ചാണു പോകുന്നത് കഴിവതും നമ്മള്ക്ക് അസുഖം വരാതെയും പശു നഷ്ടപ്പെട്ട് പോകാതെയും ഇരിക്കാനൊക്കെ ആണല്ലോ പിന്നെ ചില പശുക്കളെ സംബന്ധിച്ചെടുത്തോളം പറഞ്ഞാല് ഈ രോഗം മ രോഗം വന്നുകഴിഞ്ഞുകഴിഞ്ഞാൽ ആരും പിന്നതിന് പാല് കുറയും അതിന് ഞങ്ങള് ചെയ്യുന്നതെന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിനെ ഞങ്ങള് വില്ക്കും വിറ്റ് മാറി വേറെ പശുക്കളെ വാങ്ങും അങ്ങനെ വളർത്തി കൊണ്ടാ ഇരിക്കുന്നത് ഇപ്പോള് ഈ കാലിത്തീറ്റയ്ക്കകത്ത് വരുന്ന കുഴപ്പം എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ കാലിത്തീറ്റക്കിപ്പോള് അടിക്കടി വില കൂടി വരുന്നതുകൊണ്ട് ഓരോ മാസം കമ്പനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ആ ഇന്ന് രണ്ടായിരം രൂപ ആയിരുന്നത് നാളെ രണ്ടായിരത്തി ഇരുനൂറൂ രൂപ എന്നു പറഞ്ഞാണ് വരുന്നത് അപ്പോള് അങ്ങനെ വരുമ്പോഴത്തേക്ക് കർഷകർക്ക് താങ്ങാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ചെയ്യുന്ന എന്നാന്ന് ചോദിച്ചാൽ ഞങ്ങള് ഈ ഗോതമ്പ് തവിട് ഉളളത് വാങ്ങി ഗോതമ്പ് തവിട് ഇവിടുത്തെ ഒരു ഫാക്റ്ററിയിലുണ്ട് ഫാക്ടറി എന്ന് പറയുന്നത് മൈദാ ഫാക്ടറിയില് ഉണ്ട് ഉണ്ടാക്കുന്നൊരു ഫാക്ടറിയുണ്ട് അവിടുന്ന് ഗോതമ്പ് തവിട് വാങ്ങും ആ ഗോതമ്പ് തവിട് വാങ്ങി ഗോതമ്പും തവിടും കൂടെ ഇങ്ങനെ കുറച്ച് കൊടുക്കും അപ്പോള് ഈ കാലിത്തീറ്റയുടെ അളവ് സ്വൽപ്പം കുറയ്ക്കും കാരണം എന്നാന്ന് വച്ചുകഴിഞ്ഞാൽ സാമ്പത്തികം നിലനിര്ത്താൻവേണ്ടി ചെയ്യുന്നൊരു കേസാണ് ഇത് അപ്പോള് ഈ ഗോതമ്പ് തവിട് തന്നെ ഉള്ളെ വില അല്ല മറ്റേതിനുള്ളത് ആ വില കൂടുതല് വാ കാലിത്തീറ്റയ്ക്ക് അപ്പോള് ആ കാലിത്തീറ്റ ഈ പെല്ലറ്റായിട്ടാ വരുന്നത് അത് വരുമ്പോഴത്തേക്ക് അത് കുറേ വാരി ഇട്ട് കഴിയുമ്പോള് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് രണ്ടും കൂടി ഒന്നിച്ചെടുക്കത്തില്ല ആദ്യം പെല്ലറ്റ് തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ സ്വൽപ്പം കഴിയുമ്പഴത്തേക്ക് ഗോതമ്പ് തവിട് ശകലം കുഴച്ചു വച്ചുകൊടുക്കും ആ കുഴച്ച് വച്ചുകൊടുക്കുന്ന ഗോതമ്പ് തവിട് ആ പശു തിന്നും അങ്ങനെ തിന്ന് കഴിയുമ്പോഴത്തേക്ക് ആ അതിനെ ഒരു ഒരു പരമാവധി വന്ന് കഴിഞ്ഞാല് ഒരു ബക്കറ്റിലെ ഒരു പിന്നെ ഒരു പത്ത് ലിറ്റർ കൊള്ളുന്ന ബക്കറ്റിനകത്ത് ഒരു എട്ട് ലിറ്ററോളം വെള്ളം കൊടുക്കും എട്ട് ലിറ്ററോളം വെള്ളം കൊടുക്കും പച്ചവെള്ളം നല്ല പച്ചവെള്ളം കൊടുക്കും പച്ചവെള്ളം കൊടുത്തുകഴിഞ്ഞ് ഇതിനെ മാറ്റിക്കെട്ടി നല്ല വിശ്രമസ്ഥലത്ത് അതുപോലെ തന്നെ മാറ്റി ഞങ്ങളുടെ പുറത്തോട്ട് കെട്ടുന്ന പശുക്കളെ പിന്നെ കുളമ്പുമൊക്കെ വളരെ വൃത്തിയാക്കിയാണ് വിടണെ അതായത് ഓരോ സമയത്തും ഓരോ രോഗങ്ങള് വന്നുകഴിഞ്ഞാല് ഞങ്ങളനുഭവത്തിൽ ഞങ്ങളത് പഠിച്ചിട്ടുണ്ട് കുളമ്പ് രോഗങ്ങളും മറ്റുള്ളതൊക്കെ വന്നു കഴിയുമ്പഴത്തേക്ക് നമ്മള് ചവിട്ടി ചവിട്ടി നിക്കുന്നെ പിന്നെ പശു വളർത്തലിന് നമ്മള് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം അതിൻ്റെ ചാണകം ഇടുന്ന കൂട് അകലമായിരിക്കണം ആ ചാണകത്തിനകത്ത് നമ്മള് കൂട് മഴക്കാലം വേനല്ക്കാലം വരുമ്പോള് ചാണകം ഞങ്ങള് പൊടിക്കാനായിട്ടെടുക്കും നിരത്തി കളം ഉണ്ട് ഇങ്ങനെ കളം ഉണ്ട് ആ കളത്തിനകത്തുകൂടി ചാണകം വാരിയിട്ടുകൊണ്ട് അത് പൊടിച്ച് വളം ആക്കി അങ്ങ് പോകും മഴക്കാലം വരുമ്പോഴേക്കും അതിന് ബുദ്ധിമുട്ടാകും അങ്ങനെ ഓരോന്നും കാലത്തിന് പരിധി അനുസരിച്ച് നമ്മള് കുഴപ്പമില്ലാതെ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോള്